ഹലോ ആരാ ആണോ പറഞ്ഞോ പറഞ്ഞോ

നിങ്ങൾ എത്ര പേരാണ് രണ്ട് പേര് ആണോ ആ ഇതിപ്പം ഇവിടുന്ന് ഇപ്പം ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് കിലോമീറ്ററുണ്ട് മാഡം അപ്പോൾ അതിപ്പം എനിക്കൊന്ന് കണക്ക് കൂട്ടാതെ പറയാൻ ഒക്കത്തില്ല ഞാൻ ഒന്ന് കണക്ക് കൂട്ടി അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നോക്കി ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് പറയാം അല്ല മാഡം പിന്നേ ഇതെങ്ങനെ നിങ്ങൾ ഇന്ന് സ്റ്റേ ചെയ്യുമോ അതോ തിരിച്ച് ഓട്ടോ തന്നെ തിരിച്ച് വരാനാണോ ആ ആ ഓക്കെ അപ്പോൾ ഇന്ന് നേരത്തെ അഥവാ ഇനി ആ അത് എന്തായാലും നമുക്ക് ആ എന്തായാലും ഒരു കുറച്ച് സമയം എടുക്കും മാഡം പക്ഷേ എന്തായാലുവേ ഇപ്പോൾ നിങ്ങള് എനിക്കറിയേണ്ടത് ഇപ്പോൾ നിങ്ങള് ട്രെയിൻ താമസിക്കുവാണെങ്കിൽ സ്റ്റേ ചെയ്യത്തില്ലല്ലോ അല്ലേ ആ ആ ആ നമുക്ക് ഇപ്പം റോഡ് ബ്ലോക്കും ഒക്കെ കൺസിഡർ ചെയ്തിട്ടെ നമുക്ക് മാഡം പോകാൻ ഒക്കത്തുള്ളല്ലോ നമുക്ക് ഇപ്പം ബ്ലോക്കൊക്കെ ഇല്ലേ നമുക്ക് ചിലപ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഹവർ അല്ലെങ്കിൽ ഒരു ടു ഹവേഴ്സ് അടുപ്പിച്ച് എന്തായാലും അതിന് മുമ്പേ നമുക്ക് എത്തിക്കാൻ പറ്റുവായിരിക്കും പക്ഷെ ബ്ലോക്കൊക്കെ ഉണ്ടേ നമുക്ക് അതിനെക്കാട്ടിൽ കൂടുതലാ മാഡം അപ്പോൾ അത് നമുക്ക് പറയാൻ ഒക്കത്തില്ലല്ലോ

ആ അതെ അതെ അതെ ഞാൻ പറഞ്ഞ ടു ആൻഡ് ഹാഫ് ഹവേഴ്സൊക്കെ ഉണ്ട് നമുക്ക് ഒരു എങ്ങനെ പോയാലും ഒരു ടു ത്രീ ഹവേഴ്സ് എന്തായാലും ആ ഞങ്ങള് നമ്മൾ ഞാൻ ഇപ്പോൾ നോക്കാം മാഡം എങ്ങനെ ആയാലും മാഡം കറക്ട് ആയിട്ട് സ്ഥലത്തെത്തുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞാൽ മതി വിളിച്ച് ഈ നമ്പറില് ഓക്കെ ഓക്കെ ആ അത് ഞാൻ മാഡത്തെ ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വിളിക്കാം എന്തായാലും നമുക്ക് റോഡ് ബ്ലോക്ക് ഉള്ളപ്പം ചിലപ്പം വെയ്റ്റ് ചെയ്ത് കുറെ ഒക്കെ എടുക്കുവാണെങ്കിൽ അയിൻറ്റേതായ ദൂരം ഒക്കെ നോക്കണം അല്ലോ എന്തായാലും ഞാൻ എല്ലാം എന്തായാലും ഒരു അതെ അതെ അപ്പ്രോക്സിയേറ്റ് വാല്യൂ ഞാൻ ഇപ്പോൾ എന്തായാലും ഉടനെ അറിയിക്കാം മാഡം ശരി ശരി മാഡം താങ്ക്യൂ